ഹലോ ചേട്ടാ ഞാനുണ്ടല്ലോ ഇവിടെ പുതിയതായിട്ട് താമസത്തിനു വന്ന നമ്മുടെ ഈ വാകത്താനം പഞ്ചായത്തിനടുത്ത് ഒരു വഴിയുണ്ടല്ലോ അതൊരു സ്കൂൾ കാണുന്നത് എൽ പി സ്കൂൾ കാണുന്നത് ആ എൽ പി സ്കൂളിൻ്റെ തൊട്ടടുത്തുള്ള ഒരു വീട്ടിലാണ് വാടക വീട്ടിലാണ് ഞാൻ താമസിക്കാൻ വന്നേക്കുന്നത് അപ്പം എനിക്ക് ഒരു ആധാർ കാർഡ് എടുക്കാൻ വേണ്ടി ആധാർ എൻറോൾമെൻറ്റ് സെൻറ്ററിൽ പോകേണ്ടതായിട്ടുണ്ട് അപ്പം എനിക്കിവിടുത്തെ വഴി അങ്ങനെയൊന്നും പരിചയമില്ല അപ്പം ചേട്ടനെനിക്ക് വഴിയൊന്നു പറഞ്ഞു തരാമോ അങ്ങോട്ടേക്കു പോകാനുള്ള വഴി ഞാനാണെങ്കിൽ ഇവിടെ കുറേ പേരോടൊക്കെ അന്വേഷിച്ച് നോക്കിയപ്പം അവർക്ക് അവർക്കൊന്നും അത്ര പരിചയമില്ലെന്നു പറഞ്ഞു അപ്പം ചേട്ടനൊന്ന് എന്നെയൊന്നു സഹായിക്കാമോ നമ്മൾ പോകേണ്ടത് ഈ പഞ്ചായത്തിൻറ്റവിടുന്ന് ഇടത്തേക്ക് തിരിയണമല്ലേ ഇടത്തേക്കു തിരിഞ്ഞിട്ട് ഒരു പള്ളി കാണും ഓക്കേ പള്ളി കാണും അപ്പം പള്ളിയിൽ നിന്ന് പള്ളിയിൽ നിന്ന് ബസ്സുണ്ട് പിന്നെ ഏതു ബസ്സ് സ്റ്റോപ്പിലാണ് നമ്മൾ പോയി ഇറങ്ങേണ്ടത് എന്താ നമ്മൾ ടിക്കറ്റ് എടുക്കാൻ പറയേണ്ടത് ഞാലിയാ കുഴിയല്ലേ ഓക്കേ അപ്പം ഞാലിയാ കുഴിയിലിറങ്ങിയിട്ട് ഞാലിയാ കുഴി പി എച്ച് എസ് സി എവിടെയാണെന്നു ചോദിക്കുക പി എച്ച് എസ് സിയുടെ അടുത്തതായിട്ടാണ് നമ്മുടെ ഈ ആധാർ എൻറോൾമെൻറ്റ് സെൻറ്ററല്ലേ ആ ഞാൻ പുതിയ ആളായതു കൊണ്ടെനിക്ക് വലിയ പരിചയമില്ലിവിടെ അതാണ് ഞാൻ ചോദിച്ചത് എങ്ങനെയാണെന്നുള്ളത് ആ ഓക്കേ ശരി കേട്ടോ എന്നാൽ വളരെ നന്ദിയുണ്ട്